ഒന്നാമതായി തോന്നിയിട്ടുള്ള ആകര്ഷണമുള്ള സ്ഥലമെന്ന് പറയുന്നത് പുല്ലുപ്പിക്കടവാണ് പുല്ലൂപ്പിക്കടവിന്റെ വിനോദസഞ്ചാരത്തിന് പറ്റിയ സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ അവിടെ നമ്മള് രാത്രികാലങ്ങളിലാണ് അതിന്റെയൊരു ഭംഗി ആസ്വദിക്കാന് പറ്റുള്ളൂ അവിടെ നമുക്ക് തോണി യില് സഞ്ചരിക്കാനുള്ള ഒരു തോണി അതേപോലെ തന്നെ ബോട്ട് എന്നിവയില് സഞ്ചരിക്കാന് പറ്റിയൊരു അവസരം ഒരു അവസരങ്ങള് അവിടെയുണ്ട് കൂടാതെ അവിടെ കടവില്നിന്ന് കിട്ടുന്ന മീനുകള് കൊണ്ടുള്ള ഒരു വിനോദസഞ്ചാരികളെ ആകര്ഷണമാക്കാന് പറ്റിയിട്ടുള്ള ഒരു ഭക്ഷണരീതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കില് അത് തീര്ച്ചയായിട്ടും വിനോദസഞ്ചാരത്തിന് പറ്റിയ ഒരു സ്ഥലമാണ് എന്നാണ് ഞാന് കരുതുന്നത് രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയ സ്ഥലം എന്ന് പറയുന്നത് ഇതേപോലെതന്നെ ഒരു മുണ്ടേരിക്കടവണ് അതായത് മുണ്ടേരിക്കടവില് ഇതേപോലെ ഒരു

കുട്ടികള്ക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ കടവുണ്ട് അതിൽകൂടി നമുക്ക് ഈ പുഴയുടെ നടുക്ക് നിൽക്കാന് സഞ്ചരി നടുക്ക് നിൽക്കാന് പറ്റിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അതായത് നമ്മള് തോണിയില് സഞ്ചരിച്ചിട്ട് നമ്മളതിലേക്ക് നിന്ന് ആ പുഴയുടെ ഭംഗി ആസ്വദിക്കാന് പറ്റുന്ന രീതിയിലുള്ള ഒരു സ സന്തര്ഭം ത്തിലാണ് അവര് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അത് ഒരു വിനോദസഞ്ചാരത്തിന് ഏറ്റവും അധികം ആകര്ഷണമാക്കുന്ന ഒരു കാര്യമാണ്